ഹലോ ആ ഞാനേ നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഞാനത് പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് ആ കറക്റ്റ് അതേ കളറും അതേപോലെത്തന്നെ കറക്റ്റ് സൈസും ആയിട്ടുള്ള ആ തുണിയാണ് കിട്ടിയത് അതുപോലെത്തന്നെ അതിൻ്റെ നിലവാരം വളരെ ഉയർന്നതാണ് വളരെ നല്ല ക്ലോത്ത് ആയിരുന്നു അതിൻ്റെ ആ സ്റ്റാൻഡേഡ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ വഴി ഇങ്ങനെയുള്ള ആ ഒരു നല്ല നിലവാരം ഉള്ള ബിസിനസ്സ് നിങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന ആ സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ്